ഭീമാ ജ്യുലറിയല്ലെ ആ അത് ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ട് വിളിക്കുന്നതാണേ എനിക്ക് കുറച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയായിരുന്നു അത് ഞാ കല്യാണത്തിനും ഇടണം കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ സമയത്തും ഇടണമായിരുന്നു ആ അതെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ ആ സമയം കിട്ടുന്നപ്പോലെ ഞങ്ങള് വന്ന് കണ്ടോളാം അല്ല അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് അറിയുവായിരുന്നെങ്കിൽ ആ പല പല രീതിയിലുള്ള മോഡലൊക്കെ വേണം ആ റിങ്ങാണെങ്കിലും മാലയാണെങ്കിലുവൊക്കെ

ആ രാവിലെ ഉണ്ട് പിന്നെ രാത്രിയിലും ഉണ്ട് രാവിലെ ഒര് ആ ഒരു മാസം ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയായിരുന്നു ആ ആ ആ ഒര് പവനൊക്കെ എത്രയാകും ആണോ അല്ല ഒരണ്ട് പവൻ്റെ ഒര് മാലയൊക്കെ വേണമായിരുന്നു

ആ ആണോ കമ്മലിനൊക്കെ എത്രയാ റേറ്റ് വരുന്നത് ആണോ ആ

ആ ശരി ശരി ഞങ്ങള് സമയം കിട്ടുന്നപ്പോലെ ഈ ആഴ്ചക്കുള്ളില് ഞങ്ങള് വന്ന് നോക്കിക്കോളാം കേട്ടോ ആ താങ്ക് യു ആ ഓക്കെ